ആ ഹലോ അതെ സഞ്ജീവനം ആയുർവേദ ശാലയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളെ എങ്ങനെ സഹായിക്കണം ആ പറഞ്ഞോളൂ ഞങ്ങൾ ഇവിടെ പൊതുവേ ബാക്ക് പെയിൻ മസിൽ ബോൺ പെയിൻ അതുപോലെ തന്നെ ദിവസേനയുള്ള ഹെൽത്ത് ഇഷ്യൂസ് ആയ പ്രഷർ കൊളസ്ട്രോൾ എല്ലാത്തിനും ഇവിടെ ട്രീറ്റ്മെൻറ്സ് ഉണ്ട് നടുവേദന എന്നല്ലേ പറഞ്ഞത് നടുവേദന ആണെങ്കിൽ ഞങ്ങൾ കൂ കൂടുതൽ റെക്കമെൻഡ് ചെയ്യാറുള്ളത് കിഴി അല്ലെങ്കിൽ പിഴിച്ചിലാണ് പിഴിച്ചിൽ എന്ന് പറഞ്ഞാൽ രണ്ട് ട്രീറ്റ്മെൻറ്സ് ആണ് ഇത് രണ്ടും ഹെർബൽ നമ്മൾ തന്നെ ഇവിടെ ഉണ്ടാക്കുന്ന ഹെർബൽസ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത് അതൊക്കെ നമ്മുടെ ശരീരത്തെ ഫുള്ളും കിഴി പിടിക്കുകയും അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷനും ഇമ്മ്യൂണിറ്റി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു പക്ഷേ ഇതൊക്കെ നമ്മുടെ ക്ലിനിക്കിൽ വന്ന് നിന്ന് ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ നിന്നുള്ള ചികിത്സ ആയിരിക്കും പിഴിച്ചിൽ ആൻഡ് കിഴിച്ചിൽ ഹലോ കേൾക്കുന്നില്ലേ ആ പിന്നെ എന്താണ് ഡൗട്ട് ഉള്ളത് പിഴിച്ചിൽ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ട്രീറ്റ്മെൻറ് അതും ഇതുപോലെ തന്നെ അവിടെ ഈ നമ്മുടെ ക്ലിനിക്കിൽ തന്നെ കിടന്നുകൊണ്ടുള്ള ട്രീറ്റ്മെൻറ് ആണ് ഒരു ടു ത്രീ ഡേയ്സ് ആയതുകൊണ്ട് നമുക്ക് മിനിമം ഈ ട്രീറ്റ്മെൻറ് എടുക്കാം ഈ പിഴിച്ചിൽ എന്ന് പറയുന്നത് നമ്മുടെ നടുവേദന നടുവിൽ എല്ലാം കിഴി വെച്ച് നമ്മുടെ ഞരമ്പുകളെല്ലാം പിടിക്കുന്ന ഒരിതാണ് അത് നമ്മുടെ ബ്ലഡ്ഡിലെ സർക്കുലേഷൻ കൂട്ടാനും നമ്മുടെ എൻ്റയർ ബോഡിക്ക് ഇമ്മ്യൂണിറ്റി നൽകാൻ സാധിക്കും അതോടെ തന്നെ നമ്മുടെ ബാക്ക് പെയിൻ എല്ലാം കുറച്ച് കുറവ് കാണിക്കും ഉണ്ട് ഉണ്ട് ഇതെല്ലാം ഞങ്ങൾ ഞങ്ങൾ താഴെ തന്നെ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്സ് ആണ് ശിരോധാര എന്ന് പറയുന്നത് നമ്മുടെ തലയ്ക്കുള്ള തലയ്ക്ക് തല തണുപ്പിക്കലും തലവേദന കുറയ്ക്കാനും മൈഗ്രേഷൻ ഉള്ളവർക്കൊക്കെ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ശിരോവസ്തി എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ് നമ്മുടെ ചെവിക്കുള്ള ഇഷ്യൂസ് ആണ് ഈ നേർവ്സിനുള്ള ഇഷ്യൂസിനാണ് ശിരോവസ്തി എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ് ചെയ്യുന്നത് ഞങ്ങൾ ഇവിടെ അത് കൂടാതെയുള്ള ട്രീറ്റ്മെൻറ്സ് ഒക്കെ നസ്യം നസ്യം എന്ന ട്രീറ്റ്മെൻറ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂക്കിലെയാണ് അത് നമ്മുടെ നമ്മുടെ മൂക്കിലേക്ക് ഹെർബൽ ആയ ഓയിൽസ് ആ ഒഴിച്ചുകൊണ്ടുള്ള ട്രീറ്റ്മെൻറ് ആണ് അതൊക്കെ ഇത് ഇവിടെ വന്ന് നിന്ന് ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്സ് അല്ല നിങ്ങൾക്കത് വീട്ടിൽ ചെന്ന് അതിനായിത് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വസ്തി എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്സ് ഉണ്ട് അത് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പുകൾ ശരീരത്തിലുള്ള കൊഴുപ്പുകളും ശരീരത്തിൽ ഉണ്ടാവുന്ന അണുബാധകൾക്കെല്ലാം ഒരു മാറ്റമുണ്ടാക്കാൻ ചെയ്യുന്ന ട്രീറ്റ്മെൻറ് ആണ് ഇത് രണ്ടും അല്ലാതെ പിന്നെ ഞങ്ങൾ ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ പൊതുവേ നമ്മൾ പാക്കേജിന് ഇതിൽ നമ്മൾ ഇവിടെ കിടന്നുള്ള ചികിത്സയാണെങ്കിൽ പലതരം ഡിസ്കൗണ്ട്സ് ഉണ്ട് കാരുണ്യ നിഥി എന്ന് പറഞ്ഞ ഡിസ്കൗണ്ട് ആണ് കൂടുതൽ എല്ലാവരും ചെയ്യാറുള്ളത് അതുപോലെ തന്നെ നമ്മൾ നിന്നുള്ള ചികിത്സ അല്ലെങ്കിൽ ആ ഒരു പരിമിതിയായ ആ ഒരു എമൗണ്ടിലേ ചെയ്യാൻ പറ്റുന്നുളളൂ മിനിമം ഒരു ട്രീറ്റ്മെൻറിൽ നിന്നുള്ള ട്രീറ്റ്മെൻറിൽ മിനിമം ത്രീ തൗസൻഡ് റുപ്പീസ് ഒക്കെയാണ് വരാറുള്ളത് പിന്നെ നിങ്ങളുടെ നിങ്ങൾ വന്ന് കണ്ട് നിങ്ങളുടെ അവസ്ഥ അറിഞ്ഞാലാണ് കൂടുതൽ നമുക്ക് വിശദാംശങ്ങൾ നേരാൻ തരുവാൻ സാധിക്കുളളൂ

ഏറ്റവും നല്ലത് നേരിട്ട് വരുന്നതാണ് വരുമ്പോൾ അതിന് മുമ്പായിട്ട് ഒന്ന് വിളിച്ചിട്ട് വന്നാൽ മതി അതായിരിക്കും അപ്പോയിൻമെൻറ് കിട്ടാൻ കുറച്ചും കൂടി ഈസി ഓക്കെ ശരി എന്നാൽ ഓക്കെ ബൈ